പട്ടണങ്ങളിൽ താമസിക്കുന്നവർക്ക് മിങ്കിളിങ്ങിനുള്ള അവസരങ്ങൾ ധാരാളമായിട്ടുണ്ടാകുകയാണ് കാരണം അവിടെയൊക്കെ ക്ലബുകളും ഇപ്പോൾ മറ്റ് സ്ഥാപനങ്ങളുമൊക്കെ എല്ലാവർക്കും ഇടപഴകാനുള്ള അവസരങ്ങൾ ധാരാളമുണ്ടാക്കി കൊടുക്കുന്നുണ്ട് പക്ഷേ ഉൾനാടുകളിലുള്ളവർക്കെന്നു പറഞ്ഞാലവിടെ ഈ മറ്റുള്ളവരുമായിട്ട് നല്ല രീതിയിലിടപഴകാനുമുള്ള അവസരങ്ങളൊക്കെ വളരെ കുറവായിരിക്കും ഇപ്പോൾ ആൾക്കാരൊക്കെ അത് പ്രയോജനപ്പെടുത്തുന്നുണ്ട് എങ്കിൽ പോലും ഉൾനാടുകളിലുള്ളവർക്ക് കളിക്കളങ്ങളിലാണ് ഇവരുടെ ഈ എക്സപ്രഷൻ ഈ അവരുടെ വിചാരങ്ങളെയും വികാരങ്ങളെയും പറ്റിയൊക്കെ അവതരി മറ്റുള്ളവരുമായിട്ട് അവതരിപ്പിക്കാനുള്ളരവസരം കിട്ടുന്നത് ഇപ്പോൾ പട്ടണങ്ങളില് ഈ ഉള്ളവർക്ക് ഇതൊക്കെ ധാരാളമാണ് ക്ലബ്ബുകളോ അല്ലെങ്കിൽ സിനിമ തിയേറ്ററുകളേ അല്ലെങ്കിൽ അതുപോലെയുള്ള എൻറ്റർടെയ്ന്മെൻറ്റ് റൂഫുകളൊക്കെ ധാരാളമുള്ളത് കൊണ്ട് അവർക്കതിനുള്ള അവസരങ്ങൾ ധാരാളം കിട്ടും പക്ഷേ ഉൾനാടുകളിലുള്ളവരെന്നു പറഞ്ഞാൽ അവർക്ക് വീട് ഒരു വീട്ടിൽ നിന്നും മറ്റുള്ള വീടുകളിലേക്ക് വ്യക്തി സമ്പർക്കമൊന്നും കാണുകേല അവർക്ക് ഇതു പ്രത്യേകിച്ച് പറഞ്ഞാലൊരു വലിയ മിങ്കിളിങ്ങിനുള്ള അവസരങ്ങളൊന്നും ഉണ്ടാകുന്നില്ല കളിക്കളത്തിൽ ചെന്നാലവർക്ക് പല കാര്യങ്ങളെ പറ്റി സംസാരിക്കാനും പല കളികളിലേർപ്പെടാനും ഇതൊക്കെ ഉള്ളൊരവസരമുണ്ടാക്കി കിട്ടുന്നുണ്ട്